ഞാൻ യൂസെയ്യുന്ന ഹെഡ് ഫോണെന്നു പറഞ്ഞാല് ബോട്ടിൻ്റെ എയർ പോട്സാണ് ഞാനിപ്പം മേടിച്ചിട്ട് കുറച്ചായെങ്കിലും എനിക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആണ് ബോട്ട് തന്നിരിക്കുന്നത് എന്താ പറയുക എൻ്റെ ഒന്നാമത്തെ തന്നെ പ്രൈസാണ് ഞാൻ മേടിച്ച സമയത്ത് എനിക്ക് അറനൂറ് രൂപ റേഞ്ചിലാണ് ബോട്ടിൻ്റെ ഹെഡ്ഫോൺസ് കിട്ടിയത് നമ്മള് ബാക്കിയുള്ള കമ്പനികളെയൊക്കെ അപേക്ഷിച്ചു നോക്കുമ്പം വളരെ അഫോർഡബിൾ പ്രൈസാണ് നമ്മക്ക് അഫോർഡ് ഞാൻ ആദ്യം കരുതിയത് ആ അഫോർഡബിൾ പ്രൈസിനുള്ള ക്വാളിറ്റിയെ ഉണ്ടാവുകയുള്ളു പക്ഷെ ക്വാളിറ്റി സൂപ്പർബ് ക്വാളിറ്റിയാണ് അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും നമുക്കത് യൂസെയ്യാൻ യൂസബിൾ ആണ് അതിൻ്റെ സ്യു അത് നമുക്ക് പക്കാ സ്യൂട്ടബിളാണ് എന്താ പറയുക അതിൻ്റെ നോയിസ് വോയിസ് ക്ലാരിഫിക്കേഷൻ എല്ലാം പക്കയാണ് പ്രത്യേകിച്ചൊരു കുറ്റവും പറയാനില്ല ബോട്ടിൻ്റെ ഹെഡ്ഫോണിനെ കുറിച്ച് അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഞാൻ മേടിച്ച എനിക്ക് കിട്ടിയത് ഡസ്റ്റ് പ്രൂഫാണ് പൊടി കാര്യങ്ങള് അങ്ങനൊന്നും അതിനകത്ത് പിടിച്ച് കേറിയിരിക്കില്ല പക്കാ ക്ലാരിറ്റി ഒന്നും തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാനില്ല മോസ്റ്റ് അഫോർഡബിൾ പ്രൈസില് അടിപൊളിയാണ് ബോട്ട്